തീർച്ചയായും മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ പനിയും ജലദോഷവും വിട്ടൊഴിഞ്ഞ ഒരു ദിവസം പോലും ഉണ്ടാവില്ല അപ്പം തണുത്ത വെള്ളം കുടിക്കാതിരിക്കാൻ നോക്കും പിന്നെ തണുത്ത ഫുഡ് തണുത്ത വെള്ളം മഴച്ചാറ്റല് അതൊന്നും കൊള്ളാതിരിക്കാൻ നോക്കും കാരണം ഇതൊക്കെ കൊളളുമ്പോൾ ആണല്ലോ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് ജസ്റ്റ് തണുപ്പടിച്ചാൽ അല്ലെങ്കിൽ ചാറ്റൽ മഴയടിച്ചാൽ പെട്ടെന്ന് പനിവരും പിന്നെ സ്കൂൾ കുട്ടികളാണെങ്കില് മക്കള് സ്കൂളിൽ പഠിക്കണ മക്കളാണെങ്കിൽ ഒരാൾക്ക് വന്നാൽ അടുത്തയാൾക്കും വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പനി വീട്ടിലെത്തുന്നത് അതിനെ തടയുകാണ് വെച്ചിട്ടുണ്ടെങ്കില് ചൂടുവെള്ളം കൊടുക്കുക ഇഞ്ചി തുളസിയില അങ്ങനെയിട്ട വെള്ളം കൊടുക്കുക ജലദോഷം വന്നാൽ ആവി പിടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യം ചുക്കുകാപ്പി കഴിക്കുക തൊണ്ടവേദനെയൊക്കെ വരുമ്പോൾ ചുക്കുകാപ്പികഴിക്കണത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും കാട അങ്ങനത്തെ ഉണ്ടാക്കി കഴിക്കുക പിന്നെ മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങള് വെള്ളത്തിൽ ചതച്ചിട്ടിട്ട് കുടിക്കണത് വളരെനല്ലതാണ് പിന്നെ ഹെൽത്തിനും നല്ലതാണ് പ്രതിരോധശേഷിയും കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാറുണ്ട് ഒന്ന് തണുത്തവെള്ളം കുടിക്കാതിരിക്കാൻ കൂടുതല് ശ്രമിക്കും